ഹലോ എലക്ട്രിസിറ്റി ബോർഡ് കസ്റ്റമർ സർവീസ് ഓഫീസ് അല്ലേ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഉപകരണങ്ങൾ ആവശ്യമുണ്ട് ആജയ വിസ്റ്റൻസ് ഉപകരണങ്ങളുണ്ടല്ലോ കുറഞ്ഞ വൈദ്യുതിയിൽ ഹൈ പർഫമൻസ് നടത്തുന്ന ഉപകരണങ്ങൾ അങ്ങനത്തെ ഉപകരണങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വീട്ടിലേക്കാണ് വീട്ടുപയോഗത്തിനാണ് അപ്പോൾ അങ്ങനത്തെ ഉപകരണം ഉപകരണങ്ങളെ ഏതൊക്കെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കോള ചെയ്തത് അതുപോലെ അതിൽ എന്തേലും ഓഫറ് കാര്യങ്ങളും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ ഉപകരണങ്ങളും ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത് കാരണം നമ്മൾ വീട്ടാവശ്യത്തിനാകുമ്പോൾ ഇ വൈദ്യുതി ബിൽ ഒക്കെ ഒരു ഒരുപാട് വർധിക്കുകയാണ് അപ്പം ഒരു പെർഫോമൻസ് വളരെ മോശമാണ് ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ അപ്പം ഇതേമാതിരത്തെ ഉപകരണങ്ങൾ കിട്ടണമെങ്കിൽ വീട്ടിൽ സ വീട്ടിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളുടെ രീതിയിൽ അടിപൊളിയായി നടത്താൻ പറ്റും അപ്പോൾ നിങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ കുറഞ്ഞ വൈദ്യുതിയിൽ പെർഫോമൻസ് എടുത്ത് ഉപകരണങ്ങളും അതിന് എന്തേലും ഓഫ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ താങ്ക് യൂ